ഹലോ അതെ ഇത് എവിടുന്നാണ് വിളിക്കുന്നത് എന്തിനായിരുന്നു ഓക്കെ ഒരു മിനുറ്റ് ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ എന്നിട്ട് ഞാൻ ഇപ്പോൾ പറയാം അ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോട്ടാണോ വേണ്ടത് അ സീറ്റ് ഉണ്ട് കെട്ടോ ഓക്കെ മാസം നമ്മുടെ ഫീസ് വരുന്നത് ആറായിരം ആണ് അതല്ലാതെ പിന്നെ യൂണിഫോം അതൊക്കെ കൂടെ ഒരു വൺ ലാക്ക് ഒക്കെ വരും ഡൊണേഷൻ ആയിട്ട് നമ്മൾ കയറുമ്പോൾ കൊടുക്കണം പിന്നെ നിങ്ങൾ എന്തായാലും ഇപ്പോൾ ഇങ്ങോട്ട് വരുന്ന ദിവസം നമ്മുടെ സ്കൂളിൽ സ്കൂൾ ബസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അപ്പോൾ കുട്ടികൾക്ക് അങ്ങനെ വരാൻ ഉള്ള സൗകര്യങ്ങൾ ഒക്കെയുണ്ട് പിന്നെ അവര് ഇവിടെ വരുമ്പോൾ തന്നെ ഞങ്ങൾ ഒരു എക്സാം നടത്തും എന്നിട്ടാണ് അതിനകത്ത് പാസ് ആയാൽ ആണ് അവരിങ്ങോട്ട് നമുക്ക് എൻട്രി കിട്ടുകയുള്ളു അ അതെ അതെ ഇപ്പോൾ രണ്ടാള് രണ്ട് ക്ലാസ്സുകളിലോട്ട് ആണല്ലോ വരുന്നത് അപ്പോൾ ചെറിയ ആൾക്ക് ചെറിയ എന്തെങ്കിലും കാര്യങ്ങള് ജസ്റ്റ് അവരെ ഒരു ഇത് ചെക്ക് ചെയ്യുന്നതാണ് ടെസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അത് ടെൻഷൻ ഒന്നും ആകണ്ട പിന്നെ നമ്മുടെ ഫീസ് അടയ്ക്കുക നമ്മൾ ഇനി ഇപ്പോൾ നെക്സ്റ്റ് മണ്ടേ മുതല് തുടങ്ങും അപ്പോൾ നിങ്ങള് വരിക ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ മാസം ആറായിരം രൂപയാണ് വരുന്നത് അല്ലാതെ നമ്മൾ എന്തായാലും കയറുമ്പോൾ തന്നെ വൺ ലാക്ക് അടക്കണം അ മതി മതി പിന്നെ ഞങ്ങൾ അപ്പം തന്നെ എക്സാമില് പാസ് ആയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഞങ്ങള് യൂണിഫോമിന്റെ ഇതൊക്കെ തരും യൂണിഫോം ഞങ്ങള് സ്കൂളിൽ നിന്നുതന്നെ ആണ് നിങ്ങൾക്ക് തരുന്നത് സ്ക്കൂളിൽ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് തരും യൂണിഫോം എല്ലാം പിന്നെ ഇവർക്ക് ടെക്സ്റ്റ് ബുക്ക് അതെല്ലാം കൂടെ ആണ് വൺ ലാക്ക് ഞാൻ പറഞ്ഞത് അതല്ലാതെ മാസം ഫീസ് വരുന്നത് ആറായിരമാണ് അ പിന്നെ അ അതെ അതെ മക്കളുടെ പേര് എന്തായിരുന്നു ഓക്കെ ഓക്കെ അ നിങ്ങളുടേതോ പേരെന്റ്സിൻ്റെ ഓക്കെ ഓക്കെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നുണ്ടോ ഓക്കെ അ നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ എവിടെയാണ് താമസ സൗകര്യമൊക്കെ ഓക്കെ അത് ഓക്കെ അത് ഇവിടെ വരുമ്പോൾ ലൊക്കേഷൻ പറയണം എന്നാലെ ഞങ്ങള് സ്ക്കൂൾ ബസൊക്കെ ഞങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുകയുള്ളു ഓക്കെ അപ്പോൾ അഡ്മിഷന് വരുന്ന സമയത്ത് ഇങ്ങനെ കുട്ടികൾക്കൊരു എക്സാമുണ്ട് അതാണ് ഇപ്പോൾ ഞങ്ങള് നടത്തുന്നുള്ളൂ എന്തായാലും നിങ്ങള് മൺഡേ വരു കേട്ടോ ഈ ഒരു ഫീസ് കയ്യിലും കരുതിക്കോളൂ ഓക്കെ ശരി